ആ ആരായിരുന്നു ആ ഇത് ഏതാണ് പുതിയ നമ്പർ ആ അതെ വേറെ നമ്പർ ആയിരുന്നു ആണോ ഓ എന്താണ് വിളിച്ചത് ആ എന്തായിരുന്നു വിളിച്ചതെന്ന് ആണോ അതെന്താണ് ആണോ എല്ലാവരും ഫാമിലി എല്ലാവരും കൂടെ പോവാനാണോ ഓ ഓ ഓ ആ ആ എത്ര രൂപയാണെന്നറിയാമല്ലോ അല്ലെ ആ ആ അടുത്ത ആഴ്ച തൊട്ട് പാലിനിങ്ങനെ വില കൂട്ടാമെന്നോർത്തിരിക്കുവായിരുന്നേ സൊസൈറ്റിയിലൊക്കെ കൊടുക്കുമ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞു വില കൂട്ടിക്കൊടുത്തില്ലെങ്കിലേ ആ അപ്പം ചില വീടുകൾ ദൂരക്കൂടുതൽ ആയതുകൊണ്ട് വണ്ടിക്ക് കൊണ്ടുക്കൊടുക്കുന്നതുകൊണ്ട് പെട്രോൾ കാശൊക്കെ മുതലാകണമെങ്കിൽ ഇച്ചിരി പാലിൻ്റെ പൈസ കൂട്ടി വാങ്ങിച്ചാലല്ലേ കാര്യമുള്ളൂ ആ ആ അപ്പുറത്തെ വീട്ടിലെ അവർക്ക് പാൽ വേണ്ടേ അപ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ആണോ ആ അല്ല അവർ നിങ്ങൾ ഒരുമിച്ചല്ലേ പൈസ തരുന്നത് അപ്പോൾ അവരിനി എങ്ങനെ തരുന്നത് ആ ആ ആ എന്നാൽ അതുകൂടെയൊന്ന് നിങ്ങൾ ഒരുമിച്ച് ഒന്ന് കൊടുത്തുവിടുവായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു ആ ശരി ശരി ആ ഓക്കെ വരുമ്പോൾ വിളിക്ക് ശരി ആ ശരി